നമ്മളെ ഒരുപാട് ഉറക്കെ ചിരിപ്പിച്ച പുസ്തകം എന്ന് പറയുമ്പോൾ പുസ്തകങ്ങൾ വായിക്കുമെങ്കിലും ചിരിക്കുന്ന പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നത് വളരെ കുറവാണ് സാധാരണഗതിയില് കാരണം കൂടുതലും നമ്മള് നോവലുകള് അതില് ചിരിക്കുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കില് തന്നെ ചിരി പുസ്തകങ്ങളൊന്നും ആയിരിക്കില്ല പക്ഷേ പെട്ടെന്ന് ഓര്ക്കുകയാണെങ്കില് നമ്മള് കുട്ടിക്കാലത്ത് എല്ലാവരും വായിച്ചു കൊണ്ടിരുന്ന രണ്ട് പുസ്തകങ്ങളാണ് കളിക്കുടുക്ക ബാലരമ എന്നുള്ളവയൊക്കെ അപ്പം ഈ ബാലരമയൊക്കെ ഒരുപാട് ചിരിപ്പിക്കാനുള്ള അവസരങ്ങള് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിൽ തന്നെ ഇപ്പം പറയാണെങ്കിൽ ഒരുപാട് ക്യാരക്റ്റേഴ്സ് ഉണ്ട് മായാവി ഇപ്പം മായവിയുടെ തന്നെ ഒരു കഥ ഒരു സീരീസ് പോലെ കാണും അത് എല്ലാ ലക്കത്തിലും ഓരോ പുതിയ കഥയായിരിക്കും ഉള്ളത് ഉണ്ടാവുക മായാവിയിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മായാവിയുണ്ട് ലുട്ടാപ്പിയുണ്ട് കുട്ടൂസൻ ഉണ്ട് ഡാകിനിയുണ്ട് അതുപോലെ വിക്രമന് മുത്തു രാജു രാധ ഇങ്ങനെ പലരുമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിച്ചു കൊണ്ടിരുന്നത് അതുപോലെ ലുട്ടാപ്പിയുടെ ഒരു അമ്മാവന് വരുമായിരുന്നു പുട്ടാലു ഈ പുട്ടാലു ആണ് പുട്ടാലു വരുന്ന എപ്പിസോഡിൽ എ ല്ലാം ലുട്ടാപ്പിക്ക് എന്തെങ്കിലും പണി കിട്ടി ലുട്ടാപ്പി എന്തെങ്കിലും അബദ്ധം പറ്റി നമ്മളെല്ലാം ഇരുന്ന് ചിരിക്കാറുണ്ട് അതുപോലെ മായാവിക്കിട്ട് പണിയാന് വേണ്ടി കുട്ടൂസനും ഡാകിനിയും കൂടെ ചെയ്യുന്നത് അതുപോലെ രാജുവിനും രാധയ്ക്കും പണിയാന് വേണ്ടി ഗോട്ട് കുട്ടൂസനും ഡാകിനിയും ചെയ്യുന്നതെല്ലാം അവസാനം അവര്ക്ക് തന്നെ വിനയായി വരുന്നതും അതുപോലെ വിക്രമനും മുത്തുവും കുട്ടൂസൻ്റെയും ഡാകിനിയുടെയും ഹെല്പ്പ് തേടിപ്പോയി ഓരോ മോഷണങ്ങള് ചെയ്യാന് ശ്രമിക്കുമ്പോഴ ത്തേക്കും അത് കുളമാവുന്നു അവരെ പോലീസ് പിടിക്കുന്നു മായാവി ഇവര്ക്ക് പണി കൊടുക്കുന്നു അങ്ങനെയുള്ളതെല്ലാം വളരെ അധികം ചിരിപ്പിച്ചിട്ടുണ്ട് മായാവി ഒബ്യസ്ലി നമ്മുടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രമായത് കൊണ്ട് മായാവി ജയിക്കുന്ന കഥകളാണല്ലോ നമുക്ക് ഇഷട്ടം എന്തായാലും ആ കഥയുടെ അവസാനം മായാവി ജയിക്കുമെന്നുള്ളത് ഉറപ്പാണെങ്കിൽ പോലും നമ്മൾ വായിക്കുമ്പം വളരേ ആസ്വദിച്ചാണ് ഇത് വായിച്ചു കൊണ്ടിരുന്നത് പിന്നെ ഉണ്ടാരുന്നതാണ് സൂത്രനും ഷേരുവും സൂത്രന് എന്നാണ് പേരെങ്കില് പോലും ഷേരുവായിരുന്നു അതിൽ നമ്മളെ ചിരിപ്പിച്ചു കൊണ്ടിരുന്നതും കൂടുതലും അപ്പോൾ ഷേരു ഒരു മണ്ടനായ കടുവയാണ് ഈ മണ്ടനായ കടുവ സൂത്രന് വളരെ ബുദ്ധിമാനാണെങ്കിൽ പോലും സൂത്രന്റെ കൂടെ നടക്കുന്ന ഈ മണ്ടനായ കടുവ കാരണം സൂത്രനും ഓരോ പ്രശ്നങ്ങളിൽ പോയി ചെന്നു ചാടും ഈ ചാടുന്ന പ്രശ്നങ്ങളില് നിന്ന് എല്ലാം സൂത്രനെ എങ്ങനെ എങ്കിലും രക്ഷിച്ചു കൊണ്ട് വരും അതു പോലെ തന്നെ അതില് തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ് കടിയന് സിംഹം കടിയന് സിംഹത്തിന്റെ മകന് ഒരു കുഞ്ഞ് സിംഹം അതുപോലെ അജഗജനാട് അതുപോലെ കരിനാക്കന് പിന്നേ മൂങ്ങവൈദ്യര് അങ്ങനെയുള്ള പല ആളുകളും ഉണ്ടായിരുന്ന ഒരു കഥയാണ് ഈ പറയുന്ന കരിനാക്കനൊക്കെ വന്നാൽ ഒരുപാട് ചിരിപ്പിക്കും കരിനാക്കന് പറയുന്ന എല്ലാം നടക്കും അപ്പം ഈ സൂത്രനൊക്കെ അതുപോലെ കാട്ടിലെ എല്ലാവര്ക്കും പേടിയാണ് കരിനാക്കന് വരുന്നത് കടിയനാണ് രാജാവെങ്കിലും എല്ലാവര്ക്കും പേടി ഈ വവ്വാലിനെ ആയിരിക്കും കരിനാക്കൻ ഒരു വവ്വാലാണ് അതുപോലെ തന്നെ അജഗജന് വായിക്കൊള്ളാത്ത ഓരോന്നൊക്കെ പറയുന്ന ഒരു ആടാണ് ആട് എവിടെയെങ്കിലുമൊക്കെ പോയി തിരിച്ചു വല്ലപ്പോഴും വരുമ്പോഴായിരിക്കും സൂത്രന്റെയൊക്കെ മുന്നില് വന്നു ചാടുന്നത് അപ്പം ഇതുപോലെ എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ പറയുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഈ മായാവിയും സൂത്രനും ഒക്കെ വളരെ കാലങ്ങൾ മുന്നെ തൊട്ടേ ബാലരമയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് അതുകഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് അക്കു ഇക്കു ഒക്കെ വരുന്നത് അക്കുവും ഇക്കുവും രണ്ട് കുറുക്കന് കുഞ്ഞുങ്ങളാണ് അപ്പം ഈ കുഞ്ഞുങ്ങളെ പിടിക്കാന് നടക്കുന്ന രണ്ട് പേർ അക്കുവും ഇക്കുവും വളരേ സൂത്രശാലികൾ ആയത് കൊണ്ട് ഈ പിടിക്കാന് വരുന്നവർ ഓരോ മണ്ടത്തരങ്ങളിൽ കൊണ്ടുപോയി ചാടിക്കും അതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ അവർ അത് വിശ്വസിച്ചതു പോലെ ചെയ്യുമ്പം അവർ എന്തെങ്കിലും മണ്ടത്തരങ്ങളില് പോയി ചാടും അപ്പം നമുക്ക് വളരെ അധികം നമ്മൾ ആസ്വദിച്ച് പൊട്ടി പൊട്ടി ചിരിച്ചിട്ടുള്ള കഥകളാണ് ഇതെല്ലാം പിന്നെ വന്നു കൊണ്ടിരുന്നത് ജങ്കിള് ബുക്ക് പോലെയുള്ള കഥകളാണ് ജങ്കിള് ബുക്കിലൊന്നും വളരെ സീരിയസായിട്ടുള്ള ഒരു കഥ കഥയാണെങ്കിൽ പോലും അതിനകത്തും ഈ ബാലരമ കുട്ടികള് വായിക്കുന്ന ഒരു പുസ്തകമായത് കൊണ്ട് തന്നെ പലപ്പോഴും കാ എന്നുള്ള പാമ്പ് ഒക്കെ വന്നു ഒരുപാട് നമ്മളെ ബാലുക്കരടിയൊക്കെ വന്നു നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട് കാരണം കുട്ടികളാണല്ലോ ഇത് വായിക്കുന്നത് അപ്പോൾ കുട്ടികള് ചിരിച്ചാലേ അവർ ഇരുന്ന് വായിക്കത്തുള്ളു അതുകൊണ്ട് പലപ്പോഴും ഒരുപാട് ചിരിപ്പിക്കാനുള്ള ഓരോ കാര്യങ്ങൾ ഇതിൽ ഇങ്ങനെ ആഡ് ചെയ്തു ആഡ് ചെയ്തിട്ട് ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പിന്നെ വന്നിട്ടുള്ളതാണ് ജമ്പനും തുമ്പനും ജമ്പനും തുമ്പനും ഒരു ഡിറ്റക്റ്റീവായ മൊട്ടത്തലയന് മീശക്കാരനാണ് ജമ്പന് ജമ്പന് ഇതുപോലെ തന്നെ ജമ്പന്റെ കൂടെയുള്ള ഒരു പട്ടിയാണ് തുമ്പന് തുമ്പൻ ഇങ്ങനെ തുമ്പ് മണത്ത് കണ്ട് പിടിക്കുന്ന ആളാണ് തുമ്പന് അതുകൊണ്ടാണ് തുമ്പന് എന്ന് പേരിട്ടിരിക്കുന്നത് തന്നെ ജമ്പനും തുമ്പനും പോയി ഇതുപോലെ കേസുകള് സോള്വ് ചെയ്യുന്നു അതു പോലെ ഓരോന്നും ചെയ്യുന്നു ഇവർ കേസ് സോള്വ് ചെയ്യുമ്പോൾ ഓരോ അബദ്ധങ്ങള് പറ്റുന്നു മണ്ടത്തരങ്ങള് പറ്റുന്നു എങ്ങനെയെക്കെയോ ജയിച്ചു അവസാനം ജമ്പനും തുമ്പനും ഹീറോ ആവും അങ്ങനെയുള്ള കഥകളായിരുന്നു അതുപോലെ തന്നെ മണ്ടനായൊരു മനുഷ്യന് ഹീറോ ആയ മറ്റൊരു കഥയാണ് ശിക്കാരി ശംഭുവിൻ്റേത് ശിക്കാരി ശംഭൂന് ആക്ച്ച്വലി ഒരു വേട്ടക്കാരനാണ് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ വേട്ടയൊന്നും അറിയില്ല എങ്ങനെയോ അയാൾ ചെന്ന് ചാടും സ്ഥലങ്ങളില് നിന്ന് എല്ലാ കടുവകെളെയും മറ്റു മൃഗങ്ങളെയും പിടിക്കാന് സാധിക്കുന്നു അവസാനം ശിക്കാരി ശംഭു ഹീറോ ആവുന്നു അത് തന്നെ ആയിരുന്നു കഥകള് പക്ഷേ ശിക്കാരി ശംഭു ശരിക്ക് ഒരു മണ്ടനാണ് എന്നുള്ളത് വായനക്കാര്ക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളു ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്ന മറ്റൊരു കഥാപാത്രം അല്ലെങ്കില് മറ്റൊരു ഇതായിരുന്നു ടിന്റു മോന് ടിന്റു മോനെ നമ്മള് പരിചയപ്പെടുന്നത് നമ്മള് ടിന്റു മോന് ജോക്സ് മറ്റൊരു പുസ്തകമാണെങ്കിൽ പോലും ടിന്റു മോനെ നമ്മൾ പരിചയപ്പെടുന്നത് ബാലരമയിൽ കൂടെയാണ് ഞാന് പരിചയപ്പെട്ടതും ടിന്റു മോന് പറയുന്ന ഓരോ തമാശകള്ക്കും പണ്ട് നമ്മൾ ചിരിച്ചിരുന്നു ഇന്ന് നമുക്ക് ചിരി വരും ഇപ്പം വരത്തില്ലെങ്കില് പോലും പണ്ട് നമ്മൾ ഒത്തിരിയൊത്തിരി ചിരിച്ചിട്ടുള്ളതാണ് ടിന്റു മോന് ജോക്സും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ രാജാ തുഗ്ളന് രാജാ തുഗ്ളന്റെ കാര്യമാണെങ്കിൽ പിന്നെ അയാൾ ഒരു രാജ്യത്തിന്റെ രാജാവാണ് പക്ഷേ ഇതുപോലെ ഒരു മണ്ടന് വേറെ ഇല്ല രാജ്യത്ത് ആ ആ രാജാവിന് പറ്റിയ ഒരു ഒരു മഹര്ഷീനേയും കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് ആൾ ആൾ വൈദ്യൻ ആണെന്നാണ് പറയപ്പെടുന്നത് ആൾ ഇതുപോലെ ഓരോ മണ്ടത്തരങ്ങള് വിളിച്ചു പറയും അപ്പോൾ രാജാ തുഗ്ളൻ അയാളെ മണ്ടനെന്ന് വിളിച്ചിട്ട് തുഗ്ലക്ക് ഒരു ഒരു കാര്യം പറയും അത് അതിനെക്കാട്ടിയും വലിയ മണ്ടത്തരമാവും ഭടന്മാരും നാട്ടുകാരും ഒക്കെ ഞെട്ടി നിൽക്കും ഇതെന്തായിതെന്ന് പറഞ്ഞു അതിനെ ഒക്കെ വളരെ ശേഷം വന്ന ഒരാളാണ് മറ്റേ ഡിഷ്കു അപ്പുപ്പന് അങ്ങനെയുള്ള ആളുകൾ ഈ ഡിഷ്കു അപ്പുപ്പനെയൊക്കെ ഒന്ന് പറയുമ്പോൾ ഈ ഇടയ്ക്ക് വന്നതാണ് ഞാൻ വളരെ അടുത്താണ് ആ ക്യാരക്റ്റേസിനെയൊക്കെ കണ്ടു തുടങ്ങിയത് ഡിഷ്കു അപ്പുപ്പന് ചിരിച്ചാല് അപ്പോൾ ശക്തി വരും പത്താനയുടെ ശക്തി വരും എന്നാണ് പറയുന്നത് ഈ പത്ത് ആനയുടെ ശക്തി വരാന് വേണ്ടി ചിരിക്കാൻ അത്രയും നല്ല ഒരു കാര്യം വേണം അപ്പം ആ അപ്പൂപ്പന് ചിരിക്കുമ്പോൾ നമ്മളും ചിരിക്കും അതാണ് അതിൻ്റെ ഒരു രീതി പിന്നെ ഏറ്റവും പുറകിലുള്ള പേജിൽ ആണെങ്കില് ഉണ്ടായിരുന്നത് മൃഗങ്ങള് രാജാവായ മൃഗങ്ങളുടെ ആധിപത്യം വന്നിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതായിരുന്നു പണ്ട് വന്നു കൊണ്ടിരുന്നത് അപ്പം ആ ഒരു പേജ് നിറയെ എങ്ങനെയാണ് മൃഗങ്ങള് മൃഗങ്ങളായിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ എ ക്ക നടന്നേനെ എന്തൊക്കെ സംഭവിച്ചേനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞേനെ എന്തൊക്കെ റൂള്സ് വന്നേനെ എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങള് അതിനകത്ത് ഇങ്ങനെ ഒരു പേജില് തന്നെ നമ്മൾക്ക് ഇങ്ങനെ അറിയാന് സാധിക്കുമായിരുന്നു അതുപോലെ തന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പം മൃഗങ്ങള്ക്ക് ന്യൂസ്പേപ്പറ് വന്നിരുന്നെങ്കില് എങ്ങനെ എന്നുള്ളതിനെ പറ്റിയും അറിയാൻ സാധിക്കുമായിരുന്നു ആ അത് ഇനി ചരമക്കോളം അടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉയിരുന്നു എന്തായാലും വളരെ രസകരമായ ഒരു പുസ്തകമായിരുന്നു ബാലരമ